ഓരോ സമുദായങ്ങളിലും അവർ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യാസപ്പെട്ട് കൊണ്ടിരിക്കുന്നു എൻ്റെ സമുദായത്തിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിലെ പൊതുവെ കണ്ട് വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണങ്ങളാണ് പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് തന്നെ പുതിയ പുതിയ പാശ്ചാത്യ വസ്ത്രങ്ങളും സ്വീകരിച്ച് കൊണ്ടിരിക്കുന്നു കൂടുതാലായും കോളേജ് സ്റ്റുഡൻറ്റ്സ് സ്വീകരിക്കുന്നത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേനൽക്കാലത്തും സമ്മർക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഒക്കെയാണ് ജീൻസ് ബനിയൻ ഇത് പോലത്തെ ഡ്രസ്സുകൾ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചുംകൂടെ ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് സാരി ചുരിദാർ ബോയ്സിന് ആണെങ്കിൽ പാൻറ്റ് ഷർട്ട് പിന്നെ മുണ്ട് ഷർട്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതൊക്കെ ഓരോ വർഷവും മാറി കൊണ്ടിരിക്കുന്നു പുതിയ ട്രെൻഡിന് അനുസരിച്ചും കാലാവസ്ഥക്കനുസരിച്ച് മോഡേണ് ആകുന്നത് വഴി ഓരോ വേഷ വൈവിധ്യങ്ങളിൽ വളരെ അധികം വ്യത്യാസം വരുന്നുണ്ട് പണ്ടത്തേത് പോലെയല്ല ഇപ്പോൾ വസ്ത്രം ധരിക്കുന്നത് പ്രത്യേകിച്ചും യുവതലമുറയിൽ വളരെ അധികം മാറ്റമാണ് വന്ന് കൊണ്ടിരിക്കുന്നത് ഇത് യുവതലമുറയിൽ വരുന്ന ഈ ഒരു വേഷവൈവിധ്യം പണ്ടത്തെ ആൾക്കാർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ പല വിധത്തിലാണ് സ്വീകരിക്കുന്നത് പോസിറ്റീവ് ആയിട്ട് കാണുന്നവരും ഉണ്ട് നെഗറ്റീവ് ആയിട്ട് കാണുന്നവരും ഉണ്ട് അപ്പോൾ ഓരോ സമുദായത്തിലും വളരെ അധികമായി അവരുടെ പാശ്ചാത്യ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണരീതിയിൽ നിന്നും വ്യത്യാസപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്